വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥ്യവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് വ്യാജ വാർത്തകൾ കണ്ടിട്ടുണ്ട് വ്യാജ വാർത്തകൾ സമൂഹത്തെ വളരെ ദോഷമായ രീതിയിലാണ് ബാധിക്കുന്നത് അത് സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യാജ വാർത്തയിൽ നിന്നാണ് അത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് അത് ഒരു ആൾക്ക് വ്യാജ വാർത്ത കിട്ടി കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് കരുതി അയാൾ അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്തു അങ്ങനെ അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് അത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലുന്നു അങ്ങനെ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് യഥാർത്ഥ യാഥാർത്ഥ്യം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് യഥാർത്ഥ കാര്യങ്ങൾ സത്യസന്ധത അറിയാതെ വളച്ചൊടിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാനാണ് ആൾക്കാർക്ക് താൽപ്പര്യം അവർ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ചെയ്യുകയുമൊക്കെ ചെയ്യുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്ന് നോക്കിയിട്ട് എല്ലാവരും അത് എല്ലാവരിലേക്കും അത് ഷെയർ ചെയ്യുകയും അവർ എല്ലാവരും അത് ഒരു വിശ്വസിക്കുന്നവരും ഉണ്ട് വിശ്വസിക്കാത്തവരും ഉണ്ട് അവ സമൂഹത്തെ ഒത്തിരി ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് കൊലപാതകത്തിലേക്ക് വരെ ചെന്നു കലാശിക്കുന്നുണ്ട് വ്യാജമായിട്ട് ഒരാളെ കുറിച്ചു വ്യാജ വാർത്ത കണ്ടിട്ട് അത് പരസ്യപ്പെടുത്തുകയും അത് മോശമായ രീതി പബ്ലിക്കിലേക്ക് ചെല്ലുകയും ഉണ്ട് എല്ലാം ചെയ്യുമ്പോൾ അത് ആ യഥാർത്ഥം അറിയാതെയാണ് പലരും അതിനെ പ്രതികരിക്കുന്നത് യഥാർത്ഥമാണെന്ന് അറിഞ്ഞിട്ടല്ല അവർ പ്രതികരിക്കുന്നത് അത് തെറ്റാണോ എന്നറിഞ്ഞു കൊണ്ട് പ്രതികരിച്ചു ആ ഇത് പരസ്യപ്പെടുത്തുന്നവർ ഉണ്ട് ശരിയാണെന്ന് ഓർത്തു വിശ്വസിച്ചു ചെയ്യുന്നവരും ഉണ്ട് അവർ എല്ലാവരും ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നു മനുഷ്യർക്ക് അത് പല ദോഷങ്ങളും ഉണ്ടാവും അത് വാർത്തകൾ തിരിച്ചറിയാനായിട്ട് ആൾക്കാർക്ക് ഇന്നത്തെ ലോകത്ത് സാധിക്കുന്നില്ല അവർ എന്തു കേട്ടാലും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട് എന്നാൽ ചുരുക്കം ചിലർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ട് അവർ അത് തിരിച്ചറിയുകയും അത് അനുസരിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നു വ്യാജ വാർത്തകൾ കാണാറുണ്ട് മിക്കവാറും ഫോണുകളൊക്കെ തുറന്നാൽ വ്യാജമായിട്ടുള്ളതാണ് കൂടുതലും വരുന്നത് അതൊന്ന് സത്യസന്ധമാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുകയില്ല അപ്പം അതിന് അനുസരിച്ചു നാം കൃത്യമായ കാര്യങ്ങൾ അറിയാൻ അതുകൊണ്ടാണ് നമ്മൾ അവ അറിയാതെ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് വേറെ ഒരാളിലേക്ക് ഷെയർ ചെയ്യാൻ അങ്ങനെ ഇന്ന് പലരും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒത്തിരി ദോഷമാണ് ചെയ്യുന്നത് സമൂഹം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുന്നത് പിന്നേ യഥാർത്ഥ കാര്യങ്ങൾ അധികം ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം യഥാർത്ഥ കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുകയുള്ളൂ ഇത് കേൾക്കുന്നത് ആൾക്കാർ അതിനെ കുറിച്ചു പ്രതികരിക്കുകയും പലരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് വഴി എല്ലാവരിലേക്കും ഇത് നിമിഷം നിമിഷ നേരം കൊണ്ട് പലരിലേക്കും ചെല്ലുന്നു അത് പിന്നെ അടുത്ത ആളിലേക്ക് ചെല്ലുന്നു അങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നതാൾക്കാർക്കും കൂടുതൽ താൽപ്പര്യം ആ കുറച്ചു ആൾക്കാർക്ക് കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യാജ വാർത്ത ഒർപാട് ദോഷവശം ദോഷ വശങ്ങളുമുണ്ട് നല്ല വശങ്ങളുമുണ്ട് വ്യാജ വാർത്ത വഴി ദോഷം മാത്രമേ ഉള്ളു അത്